അതെ അതെ ആണല്ലോ ആ അഞ്ചലിലോട്ട് ഉടനെ പോവുന്നുണ്ടോ ആ അ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ ഇവിടുന്ന് നേരെ വലത്ത് കട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് ചെല്ലുക നേരെ അങ്ങോട്ട് ചെന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് റോഡുകൾ കാണും എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ അങ്ങ് പോയിക്കൊണ്ടാൽ മതി രണ്ട് റോഡ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ അമ്പലവും ഒരു ഓരോരു മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതൊരു ജംഗ്ഷൻ ആണ് കേട്ടോ ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് രണ്ടുമൂന്ന് സ്ഥലം ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ റോഡ് ഉണ്ട് അതിൻ്റെ അങ്ങനെ അങ്ങനെ പോകരുത് പക്ഷേ നേരെ അഞ്ചലിലേക്ക് പോകുന്ന നേരെയുള്ള സ്ട്രെയിറ്റ് റോഡ് ആ റോഡ് നേരെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു കിലോമീറ്റർ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും രണ്ട് റോഡുകൾ കാണാം അത് കഴിഞ്ഞിട്ട് ആ റോഡ് നേരെ ചെല്ലുമ്പോൾ ഒരു പാലം ഒക്കെ ഉണ്ട് ആ പാലം കട്ട് ചെയ്തിട്ട് നേരെ ഒരു ചേരി ഒക്കെ ഉണ്ട് അത് വഴി നേരെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു അഞ്ച് ഇവിടുന്നൊരു ഏകദേശം ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും വണ്ടിയിലാണ് പോവുന്നതെങ്കിൽ എന്ത് വണ്ടിയിലാണ് പോവുന്നത് സ്കൂട്ടിയിൽ അപ്പം സ്കൂട്ടിയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റും അവിടെ ചെന്നിട്ട് നേരെ കുരിശ് അവിടുന്ന് ഈ പറഞ്ഞ ചേരി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു വളവൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ബൈപ്പാസ്സ് ബൈപാസ്സ് കാണാം അവിടെ ജംഗ്ഷനിൽ ആ ബൈപ്പാസ്സിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ബൈപ്പാസ്സ് വഴി പോവണമെന്നുണ്ടെങ്കിൽ അഞ്ചൽ കട്ട് ചെയ്ത് പോവാൻ ആണെങ്കിൽ ബൈപ്പാസ്സിൽ ഇടത്തോട്ട് കട്ട് ചെയ്ത് പോവണം ഇല്ലെങ്കിൽ നേരെ അങ്ങ് പോയാൽ മതി പാലം അവിടെ ഒരു പാലം ഉണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ജംഗ്ഷനിലേക്ക് ആയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പമ്പ് ഒക്കെ ഉണ്ട് പെട്രോൾ പമ്പ് അവിടെ ഉണ്ട് അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ അടിച്ചിട്ട് പോവാം അവിടുന്ന് പിന്നെ അതുവഴി നേരെ ആ മാർക്കറ്റ് റോഡിൽക്കൂടെ നേരെ അങ്ങ് പോയാൽ മതി അവിടെ ആവുമ്പോൾ അഞ്ചലിൽ ചെല്ലും രണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നിങ്ങൾ ഈ ഇടയ്ക്കുള്ള വഴികൾ ഒന്നും കട്ട് ചെയ്ത് കയറാതിരുന്നാൽ മതി നേരെ ലൈ നേരെ സ്ട്രെയിറ്റ് റോഡിൽ പോയിക്കൊണ്ടാൽ മതി ആ ഇടയ്ക്കുള്ള റോഡുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ വഴി തിരിഞ്ഞു പോകും പിന്നെ മാർഗ്ഗമില്ല അത് കൊണ്ടാണ് അപ്പം നേരെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ കട്ട് റോഡുകൾ മ വലത്തോട്ട് ഇടത്തോട്ട് എല്ലാം റോഡുകളുണ്ട് ശരിക്കും അതിലൊന്നും പോവേണ്ട ഉം നേരെയുള്ള റോഡ് വിട്ടങ്ങ് പോയിക്കൊണ്ടാൽ മതി

ശരി ഉം